നമ്മുടെ ജില്ലയിലെ പ്രധാനമായിട്ട് ആരാധനാലയങ്ങങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പള്ളികളും അമ്പലങ്ങളും ഉണ്ട് മോസ്കുകളൊന്നും നമ്മൾ ഇവിടെ അധികം കണ്ടിട്ടില്ല നമ്മുടെ പള്ളികളും അമ്പലങ്ങളിലും പ്രധാനമായിട്ട് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവങ്ങളുണ്ട് ഇപ്പോൾ പള്ളികളിൽ ആണെങ്കിൽ പെരുന്നാളുകൾ ഉണ്ട് പക്ഷേ അത് കൂടാതെ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്മസ് ഓണം അതുപോലെ തന്നെ ഈസ്റ്റർ വിഷു അങ്ങനെത്തെ ഉത്സവങ്ങളാണ് അതാണ് നമ്മൾ എല്ലാ വർഷവും കൂടുതലായിട്ട് നമ്മൾ ഫോളോ ചെയ്തു വരുന്നത് അത് നമ്മുടെ സമൂഹത്തിൽ കുറച്ചും കൂടി ഐക്യം എല്ലാം ഇപ്പോൾ ജാതിയുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ആഘോഷിക്കുന്ന ഉത്സവങ്ങളായിട്ടാണ് ഞാൻ ഓണം ക്രിസ്തുമസ് അതുപോലെ തന്നെ ഈസ്റ്റർ വിഷു തുടങ്ങിയ ഉത്സവങ്ങളെയെല്ലാം ഞാൻ കാണുന്നത് ഞാൻ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് കാണുന്നത് ഞങ്ങളുടെ പ്രദേശത്തെ എല്ലാവരും അങ്ങനെ തന്നെയാണ് കാണുന്നത് ഇപ്പോൾ ഓണം ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും വിഷു ആണെങ്കിലും ഹിന്ദു മുസ്ലിം ക്രിസ്റ്റ്യൻ എന്ന വ്യത്യാസമില്ലാതെ നമ്മൾ എല്ലാവരും തന്നെ ആഘോഷിക്കുന്ന ഉത്സവങ്ങളാണ്